ആ ഹലോ ആ ടീച്ചറേ ആ ആ ആ എന്തുണ്ട് ഹലോ ആ ആ ടീച്ചറിന്റെ പ്രോഗ്രാമൊക്കെ ഓക്കെയായോ ആ ഹാ ആണോ ആ ആ ഹാ ആ അത് ശരിയാണ് ആദ്യമേ കിട്ടി ആദ്യമേ തന്നെ എല്ലാവരും വന്ന് സെലക്റ്റ് ചെയ്ത് നന്നായിട്ട് കളിക്കാന് അറിയാവുന്ന പിള്ളേരെയൊക്കെ അല്ലേ ആ എനിക്ക് പ്രെയര് ഡാന്സാണ് ആ ആ ആ അതെ ആ അതെ അതെ ഇനിയിപ്പം പിള്ളേരെ കിട്ടാന് പാടായിരിക്കും അല്ലേ തപ്പണം കുറേ മ് ആ ആ ആ ആ ആ അതെ അതെ മ് ആ ഹാ ആ എനിക്ക് പിള്ളേരൊക്കെ മ് സെലക്റ്റായി പക്ഷേ ആ ഞാന് ആം ഇതിനകത്ത് പഠിപ്പിച്ച് തുടങ്ങാമെന്നോര്ത്താണ് പിന്നെ നമുക്ക് അധികം ദിവസവുമില്ലല്ലോ അതെ ആ ആ ആ അടുത്ത എട്ടാം തീയതി അങ്ങനെയല്ലേ പറയുന്നത് കേട്ടത് പറഞ്ഞത് ആ ഒന്നോ രണ്ടോ ആഴ്ചയെങ്ങാണ്ടെയുള്ളൂ നമുക്കിനി ആ ആ ആ അതെ അപ്പോഴേക്കും നമ്മള് മ് എല്ലാവരെയും പഠിപ്പിച്ച് തുടങ്ങണം മ് ആ ആ അതെ ആണോ ആ എന്റെ പോഷനൊക്കെ ഏകദേശം തീരാന് തീര്ന്നു എനിക്കിനി ഒരു ആക്ടിവിറ്റി ഒന്ന് രണ്ടാക്റ്റിവിറ്റിയും കൂടെ ചെയ്യിപ്പിച്ചാല് മതി അപ്പോള് എന്റെ ക്ലാസ്സ് കഴിഞ്ഞ് കഴിയുമ്പോള് ഞാന് ആ എനിക്കിനി ഒരു അവറും കൂടെ കിട്ടിയാല് മതി ഞാന് ബാക്കി ടീച്ചറിന് തന്നേക്കാം ആ ആ ആ ആ ആ കുഴപ്പമില്ല ഞാന് ആ മ് ആ ആ ആ അതെ അതെ മ് മ് പെട്ടന്നെടുത്തിത് പോകാനും പറ്റില്ലല്ലോ മ് മ് ആ അതെ ആ അതെ അതെ പിന്നെ ഉച്ചകഴിഞ്ഞ് ഫുള് ടൈം ഇങ്ങനെ പ്രാക്റ്റീസിന് മാറുകയും ചെയ്യുകയല്ലേ ആ ആ ആ ആ അതെ ആ അതെ അതെ ആ മ് ആ അതെ അതെ ആ അത് കുഴപ്പമില്ല ഞാനെന്റെ അവര് തന്നേക്കാം ടീച്ചറിന് അത് സാരമില്ല മ് ഓക്കെ കുഴപ്പമില്ല മ് ഇനി നമ്മുടെ പ്രോഗ്രാമൊക്കെയൊന്ന് സെറ്റാക്കി ആ ആണ് ആണ് ആ എല്ലാവരും എന്താണ് പെട്ടെന്നുതന്നെ എല്ലാവരെയും പഠിപ്പിക്കണം പ്രാക്റ്റീസ് കൊടുക്കണം പിന്നെ അവര്ക്ക് എല്ലാവര്ക്കും ഒരു ദിവസം നമുക്കത് കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രോഗ്രാമും കറക്റ്റായിട്ട് ആ ഓഡറില് തന്നെ കാണണം സമയം ലാഗ് ആ സമയം ലാഗടിക്കാതെ കറക്റ്റ് കയറണം ഒരു ഒരു പ്രോഗ്രാം കഴിഞ്ഞൊട്ടും സമയം മ് കളയരുത് അടുത്ത പിള്ളേര് റെഡിയായിട്ട് കയറാന് നില്ക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ആം ആ അതെ അതെ ആം പിന്നെ മേക്കപ്പൊക്കെ ആ അതെ എന്റെ ആദ്യം ആദ്യം കഴിയും മ് അതെ അതെ ആദ്യത്തെ പ്രോഗ്രാമാണ് കഴിഞ്ഞാല് പിന്നെ ഞാന് ഫ്രീയായി ആ ഞാന് പിന്നെ ടീച്ചറിന് വേണമെങ്കില് വല്ല ഹെല്പ്പ് ചെയ്യാനൊക്കെ ഞാന് കൂടാം ആ എനിക്കിനിപ്പോള് എന്റെ കുറേ പേരൻസ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ മേക്കപ്പ് ചെയ്യാന് വേണ്ടിയിട്ട് പിന്നെ ആ ആയി അങ്ങനെ ആ അതെ അങ്ങനെയാണ് ആ ആ ഉണ്ടല്ലോ ആം അതെ അതെ ആം പുറത്ത് നിന്നങ്ങനെ ഇപ്പോള് എങ്ങനെയാണ് പ്രിന്സിപ്പളും പറഞ്ഞു ഒരുപാട് പൈസ ഇങ്ങനെ ചെലവാകാതെ പേരൻസിന് ഒത്തിരി ബേഡന് ആകാത്ത രീതിയില് നമ്മള് എന്തെങ്കിലും ചെയ്യാനായിട്ടാണ് പറഞ്ഞത് മാക്സിമം എല്ലാം മ് വലിയ ഒരുപാട് വിലയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട അങ്ങനെ പിള്ളാരുടെ കൈയില് അത്യാവശ്യമുള്ളതൊക്കെ ഒരുമിച്ച് ഒരുപോലെയുണ്ടോ എന്നൊക്കെ നോക്കാന് പറഞ്ഞു എനിക്ക് പിന്നെ വെള്ളയുടുപ്പല്ലേ പ്രെയര് ഡാന്സായതുകൊണ്ട് അതുകൊണ്ട് ആ അതെ ആം അതെ അതെല്ലാവര്ക്കും തന്നെ ഉണ്ട് കുഴപ്പമില്ല മ്

ആ ആ ആ ആ അതും പിന്നെ കുഴപ്പമുണ്ട് ആ അതെ അതെ പിന്നെ വലിയ മേക്കപ്പ് ഒരുപാടൊന്നും വരുന്നുമില്ലല്ലോ ആം ആ അതെ മ് ആ ആ അതുമതി പിന്നെ എല്ലാമൊന്ന് ഓ കറക്റ്റ് അതെ ഒരുപോലെയങ്ങ് ചെയ്താല് മതിയല്ലേ എല്ലാം നല്ലതായി ചെയ്താല് മതിയായിരുന്നു മ് മ് ആ ആ അതെ അതെ ആ ആ അതെ ആ ആ ആ അതെ അതെ ആ ആ അതെ അത് ആ പിന്നെ വേറെയൊന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നു പ്രിന്സിപ്പള് എല്ലാവരും ഇങ്ങനെ പ്രോഗ്രാമിന്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ടീച്ചറിനെന്താണ് പറ്റിയത് അന്ന് ടീച്ചര് അന്ന് ലീവായിരുന്നുവെല്ലെ ആ ആ ആ ആ ആ ആ ഹാ ആ ഹാ ഇത്രയൊക്കെയെ പറഞ്ഞുള്ളൂ അങ്ങനെ ഒരു ഒരു ഒരുപാട് എക്സ്പെന്സ് ആകാതെ പേരൻസിനെ ഒത്തിരി ബുദ്ധിമുട്ടിക്കല്ലെ എന്നൊക്കെയെ പറഞ്ഞിട്ടുള്ളൂ മാക്സിമം ആ നമ്മള് തന്നെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ചെയ്യാന് പറ്റുന്നതൊക്കെ ചെയ്യുക പിന്നെ ഒട്ടും പറ്റില്ലാത്തതൊക്കെ പുറത്തു നിന്നൊക്കെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു ആ വേറെ അങ്ങനെയൊന്നും പറഞ്ഞില്ല മ് ആ ആ അതെ അതെ ആ ആ പിന്നെ ആ അതെ അതെ ആ മ് ആ പിന്നെ മ് ആ പിന്നെയങ്ങനെയൊക്കെ അത്യാവശ്യം കുറേ പേരൻസ് പിള്ളേരുടെ കയ്യിലൊക്കെത്തന്നെ കുറേ കാര്യങ്ങളൊക്കെയുണ്ടല്ലോ അപ്പം നമുക്ക് ആ അതെല്ലാമൊക്കെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാം മ് പ്രോഗ്രാം അടിപൊളിയായാല് മതിയായിരുന്നു അല്ലേ ആ ആ ആ ആ ആ എന്നാല് ടീച്ചറെ എന്നാല് വെച്ചുകൊള്ളട്ടെ ആ ആ ആ ഓക്കെ